ഇപ്പോൾ വൈദ്യുതി മുടക്കം അങ്ങനെ ഉണ്ടാകാറില്ല ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും വൈദ്യുതി ലഭിക്കാറുണ്ട് ചില സന്ദർഭങ്ങളില് ഒഴിച്ച് ചില സന്ദർഭങ്ങളെന്ന് പറയുമ്പോൾ ഇപ്പോൾ ട്രാൻസ്ഫോമ്മറിന് എന്തെങ്കിലും അറ്റകുറ്റ പണികൾ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ആ ടൈമിൽ കംപ്ലീറ്റ് പവറും അവര് ഓഫ് ചെയ്ത് വയ്ക്കുന്നതായിരിക്കും ആ ടൈമില് നമുക്ക് ചിലപ്പോൾ ഒരു മണിക്കൂറായിരിക്കാം അല്ലെങ്കിൽ രാവിലെ മുതൽ വൈകുന്നരം വരെ ചിലപ്പോൾ കറണ്ടില്ലാതെ ഇരിക്കാം അത് പണിക്കനുസരിച്ചായിരിക്കും ഉണ്ടാകുന്നത് ഇപ്പോൾ അല്ലാണ്ട് പണ്ടത്തെപ്പോലെ ലോഡ് ഷെഡ്ഡിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോളങ്ങനെ വൈദ്യുതി മുടക്കം ഒന്നും ഡെയിലി നമുക്ക് ഇല്ല പണ്ടൊക്കെ വെദ്യുതി മുടക്കം എന്ന് പറയുന്നത് ആദ്യമൊക്കെ ഒരു മണിക്കൂറായിരുന്നു ഡെയിലി രാത്രിയില് ഏതെങ്കിലും ഒരു മണിക്കൂറ് ഓരോ ഏരിയ വച്ചിട്ട് കറണ്ട് പോകുമായിരുന്നു പിന്നെ ഒരു മണിക്കൂറിനെ വെട്ടിക്കുറച്ച് അരമണിക്കൂറാക്കി പിന്നെ അതിനെ പത്ത് മിനിറ്റാക്കി പിന്നെ പിന്നെ ആയപ്പോഴേക്കും അങ്ങനെ വൈദ്യുതി മുടക്കം ഉണ്ടാകാറേ ഇല്ല ഇങ്ങനെ എന്തെങ്കിലും പണികൾ വരുമ്പോഴോ അല്ലങ്കിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴോ ഈ കാക്കയോ വവ്വാലോ ലൈൻ കമ്പിയിലേക്ക് കയറി ഇരിക്കുമ്പോഴോ ഷോർട്ടാകുമ്പോഴോ ഒക്കെ മാത്രമേ വെദ്യുതി മുടങ്ങത്തുള്ളൂ അല്ലെങ്കിൽ ഓല അല്ലെങ്കിൽ എന്തെങ്കിലും തടി അല്ലെങ്കില് മരത്തിൻ്റെ ചില്ലകൾ ഒടിഞ്ഞ് ലൈൻ കമ്പിയുടെ പുറത്തേക്ക് വീഴുക അങ്ങനത്തെ സന്ദർഭങ്ങളിൽ മാത്രമേ വരാറേ ഉള്ളു മഴ സമയത്തൊക്കെ പിന്നെ കാലാവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ കറണ്ട് ഉണ്ടെങ്കിലും കറണ്ട് ഇല്ലങ്കിലും നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് ചൂടാണ് കേരളത്തിലിപ്പോൾ ഉള്ളത് മുമ്പക്കെ ആണെന്നുണ്ടെങ്കിൽ കറണ്ട് പോയിക്കഴിഞ്ഞാൽ എല്ലാവരും മുറ്റത്തേക്ക് വന്ന് ഇരിക്കും കുറച്ച് തണുപ്പ് കിട്ടും അങ്ങനെ ഒരു സാഹചര്യമായിരുന്നു പക്ഷേ ഇപ്പോഴ് മുറ്റത്തിറങ്ങിയാലോ രാത്രിയായാലോ ഒന്നും തണുപ്പില്ല അപ്പോൾ ഈ ഒരു കാലാവസ്ഥ വ്യത്യാസം ഒരുപാട് ടെമ്പറേച്ചർ ഡിഫറൻസ് അനുഭവപ്പെടുന്നുണ്ട് ഇപ്പോൾ രാത്രിയായാലും ചൂട് അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ കറണ്ടും കൂടെ ഇല്ലാന്നുണ്ടെങ്കിൽ ഫാനില്ലാണ്ടിരിക്കാനേ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ കണ്ട് വരുന്നത് പണ്ടക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂറ് കറണ്ടില്ലായ്മ അല്ലെങ്കിൽ അര മണിക്കൂറ് കറണ്ടില്ലാത്ത സമയത്ത് പുറമെ വന്നിരുന്ന് തണുത്ത കാറ്റും നിലാവും ഒക്കെ വെളിച്ചത്തില് സ്വന്തം വീട്ടിലുള്ള ആൾക്കാരെ തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അപ്പോഴൊക്കെ ഒരു ടൈമായിരുന്നു എല്ലാവരും ഒന്നിച്ചിരുന്ന് അല്ലെങ്കിൽ ടെറസിലേക്ക് പോയി ഇരിക്കുക കിടക്കുക പായ കൊണ്ടുപോയി കിടക്കുക ബാൽക്കണിയിൽ കിടക്കുക തണുപ്പ് കൊള്ളുക എന്നൊക്കെ ഉള്ളത് ഇപ്പോൾ കറണ്ട് പോയാൽ പുറത്തിറങ്ങിയാൽപ്പോലും തണുപ്പ് കിട്ടാത്തൊരവസ്ഥ എന്നൊരിതാണ് പിന്നെ ഇപ്പോൾ സിറ്റി ഏരിയാസില് കൂടുതലായിട്ടും വൈദ്യുതി മുടക്കം ഉണ്ടാകാറില്ല പൊതുവെ അല്ലാണ്ട് നമ്മളിപ്പോൾ ഇപ്പം നാട്ടും പുറത്ത് അല്ലെങ്കിൽ കുറച്ച് വില്ലേജ് ഏരിയാസില് പോയ്കഴിഞ്ഞാല് ഒരു ഒരു പ്രത്യേക സമയത്തേക്ക് ചിലപ്പോൾ കറണ്ട് കാണില്ല അങ്ങനത്തെയൊക്കെ ഉണ്ട് ഇപ്പോൾ പിന്നെ കേരളം ഡെവലപ്പായി വരുന്നത് കൊണ്ട് ഒട്ട് മിക്ക സ്ഥലങ്ങളിലും കറണ്ട് എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങളിലും സോളാർ വെച്ചിട്ടും കറണ്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ വൈദ്യുതി മുടക്കം ആ രീതിയിലും ഒരു ഏരിയയിൽ അവരെ ബുദ്ധിമുട്ടിക്കുന്നില്ല ഇതിൻ്റെ എല്ലാം കാരണം ടെക്നോളജിയുടെ ഡെവലപ്പ്മെന്റ് തന്നെയാണ് അപ്പോൾ അരമണിക്കൂർ ഒരു മണിക്കൂർ ആയിരുന്നു സാധാരണ വൈദ്യുതി മുടക്കം ഉണ്ടായിരുന്നത് അതിപ്പോൾ വെട്ടിക്കുറച്ച് കുറച്ച് ഇപ്പോൾ വൈദ്യുതി മുടക്കമേ ഇല്ല ഏതെങ്കിലും അറ്റകുറ്റപ്പണികൾക്ക് മാത്രമേ ഇപ്പോൾ നമ്മുടെ സ്ഥലത്തൊക്കെ വൈദ്യുതി മുടങ്ങാറുള്ളു